ആ ആ വരൂ ഇരിക്കൂ ഇരിക്കൂ എന്താണ് പേര് ഓക്കെ എവിടെ നിന്നാണ് വരുന്നത് ഓക്കെ ഓക്കെ സി വി കൊണ്ടുവന്നിട്ടുണ്ടോ സെർടിഫികറ്റ്സ് ഒക്കെയോ എല്ലാം എടുത്തിട്ടില്ലേ ഓക്കെ നമ്മുടെ ജോബിനെക്കുറിച്ച് അറിയുമോ ആ നമ്മൾക്ക് ഇപ്പോൾ മാനേജിംഗ് പോസ്റ്റിലേക്കാണ് ജോബ് ഫ്രണ്ട് ഏരിയയിൽ അപ്പോൾ ഇയാളും ഉണ്ടാവും പിന്നെ ഇയാളുടെ അണ്ടറിൽ ഒരു ആറേഴ് പേരും ഉണ്ടാവും അപ്പോൾ അവരെ ഒക്കെ ഒന്ന് മാനേജിംഗ് ചെയ്യാൻ ആണ് ജോലി ഓക്കെ ഓക്കെ അപ്പോൾ ഏത് വരെ പഠിച്ചു പി ജി ഇല്ലേ ആ ഓക്കെ ഏതാണ് സബ്ജക്റ്റ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സിൽ അപ്പോൾ എം എസ് സി കഴിഞ്ഞു വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും കോഴ്സ് ഓക്കെ അത് എത്ര വർഷത്തെയാണ് ഒരു വർഷം അല്ലേ ഓക്കെ ഇതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അതെ അല്ലേ ആറ് മാസം അല്ലേ ഓക്കെ ആ അത് ഇവിടത്ത നാട്ടിൽത്തന്നെ ആണോ അതോ പുറത്തോ പുറത്തായിരുന്നു അല്ലേ പുറത്ത് എന്ന് പറയുമ്പോൾ പാലക്കാട് പുറത്ത് ആണോ അതോ കേരളത്തിൻ്റെ പുറത്തായിരുന്നോ ഓക്കെ അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്തോ അവിടെ എന്തായിരുന്നു വർക്ക് ഓക്കെ അവിടെ എന്തായിരുന്നു വർക്ക് ഫ്രണ്ട് ഓഫീസ് തന്നെയായിരുന്നു അല്ലേ അവിടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ ആറു മാസം അവിടെ മാത്രം ആണോ വർക്ക് ചെയ്തിട്ടുള്ളത് വേറെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല അല്ലേ ഓക്കെ അപ്പോൾ കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ് അല്ലേ അവിടെ ആറ് മാസത്തെ ഓക്കെ ഓക്കെ അപ്പോൾ സാലറി ഒക്കെ എന്തായിരുന്നു അവിടെ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്

ഓക്കെ ഓക്കെ പതിനേഴല്ലേ ഓക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ടൈം വന്നിട്ട് ഒമ്പത് ടു അഞ്ചാണ് ഓഫീസ് ടൈം തന്നെ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തായതുകൊണ്ട് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട് അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അവിടെ കിട്ടും ആ അതെ ഹോസ്റ്റൽ പോലെ അവിടെ ഉണ്ട് താമസിക്കാൻ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോയി വരാം നമ്മൾക്ക് ഇപ്പോൾ ബസ്സ് ആ പോയി വന്നാൽ മതി അപ്പോൾ ഇവിടെ ഫസ്റ്റ് സാലറി പറഞ്ഞിട്ട് ഒര് ഇരുപത്തഞ്ച് രൂപ കിട്ടും ഇരുപത്തയ്യായിരം അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് നിങ്ങളുടെ പെർഫോമിന് അനുസരിച്ച് ഇൻക്രിമെൻറ്റ് ഉണ്ടാവും പിന്നെ ആ ഇൻക്രിമെൻറ്റ് പെർഫോമൻസ് അനുസരിച്ച് ആറ് മാസം കൂടുമ്പോൾ ഇൻക്രിമെൻറ്റ് തരും അല്ലാണ്ട് വർഷത്തില് ഇൻക്രിമെൻറ്റ് സാലറിയിൽ ഉണ്ടാവും ഓക്കെ അങ്ങനെ ആണ് നമ്മുടെ ആ വർക്ക് ടൈമ് വരുന്നതും അതിൻ്റെ വർക്കിൻ്റെ സ്ട്രക്ച്ചറും ഓക്കെ അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഒക്കെ കൊണ്ട് വന്നിട്ട് ഇല്ലേ ഓക്കെ ആ എല്ലാത്തിൻ്റെയും കോപ്പി തന്നിട്ട് പൊയ്ക്കോളൂ ഞാൻ വിളിക്കാം ഓക്കെ അല്ലേ ഓക്കെ ശരി